ഇന്ത്യയിലെ ഭക്ഷണം ഭയങ്കരമായിട്ടുള്ള ജനപ്രിയ ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി പിന്നെ പൊറോട്ട പൂരി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സാധനങ്ങള് പിന്നെ കറികള് സാമ്പാറ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇറച്ചി ചിക്കൻ ആ ഫീൽ ഫീൽഡുമായിട്ട് ബന്ധപ്പട്ടുള്ള കറികള് ഉണ്ടാക്കി കഴിക്കുക കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ന്നെ നമ്മളിവിടെ കേരളത്തിലേക്ക് കടന്നുവരുമ്പോള് ഇവിടെ പിന്നെ സാമ്പാറ് കറികളൊക്ക ഉണ്ടാക്കും സാമ്പാറ് ന്ന അവിയല് ഇതിലക്കെ പിന്നെ ഒരുപാട് പച്ചക്കറികള് ഒരുപാട് ചേർക്കുന്നുണ്ട് അതായത് കത്തിറിക്ക പിന്നെ കത്തിരിക്ക വെണ്ടയ്ക്ക അങ്ങനെയൊക്കെയുള്ള ഉരുളക്കിഴങ്ങ് അതുപോലുള്ള എല്ലാ സാധനങ്ങള് അതിന്റകത്ത് കൂടുതലായിട്ട് നമ്മള് ചേർക്കുന്നുണ്ട് അത് മസാലകളെന്നു പറയുമ്പോള് ഇപ്പോള് പിന്നെ സാമ്പാറ് പൊടി മുളകുപൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ അങ്ങനൊക്കെയുള്ള പിന്നെ മസാലപ്പൊടികളൊക്കെ ഇതിനോട് ഇതില് ഒരുപാട് നമ്മള് ഇതിനോട് കൂടി ചേർക്കാറുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ ഓണത്തിനൊക്കെ നമ്മളെ ഓണം കളികള് നമ്മളെ ഓണവിഭവമെന്നു പറയുമ്പോള് മലയാളിയുടെ ഓണവിഭവമെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര പേരുകേട്ടൊരു പിന്നെ സംഭവമാണ് അതിന് പിന്നെ ഭയങ്കര ജനപ്രിയത ഉള്ള ഒരു കാര്യമാണ് മലയാളിയുടെ പിന്നെ ഓണവിഭവം ഓണവിഭവത്തിനകത്ത് പത്തും പന്ത്രണ്ടും കറികളൊക്കെ ഉണ്ട് കിച്ചടി പച്ചടി പിന്നെ കാളൻ തോരൻ പിന്നെ പിന്നെ സാമ്പാര് പരിപ്പ് അങ്ങനെയൊക്കെയുള്ള പിന്നെ കറികളൊക്കെ ധാരാളമായിട്ട് ഇതിനോട് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്